നമ്മുടെ ടി വിക്കകത്ത് ദിവസോം ഞാൻ ടി വി കാണാറുണ്ട് ഈ അവതാരകരൊക്കെ ഒത്തിരി പേരുണ്ട് അവരെല്ലാം അവതരിപ്പിച്ച് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് ഓരോ ടി വിക്കാർ പറയും ഞാനാണ് ഏറ്റവും മുന്നിൽ ഞങ്ങളാണ് ഏറ്റവും മുന്നിലെന്ന് പറയും പക്ഷേ ഇതിനകത്തൊന്നും വലിയ കഥയൊന്നുമില്ല എന്നുള്ളത് അവർക്കും അറിയാം എന്നാലും അവരങ്ങ് പറയും ഞാനാണ് അവിടുത്തെ ഫോട്ടോ എടുത്ത് ആദ്യം ഇങ്ങോട്ട് ഇട്ടത് ഇവിടുത്തെ ഫോട്ടോ എടുത്ത് ആദ്യം ഇട്ടത് ഞാനാണ് അതുകൊണ്ട് എന്നിൽ കൂടെ ആണ് എല്ലാവരും കണ്ടത് അതുകൊണ്ട് ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ ശരി മറ്റുള്ളവരൊക്കെ അതിൻ്റെ പുറകെ വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട് ഇതെല്ലാം നമ്മൾ കേൾക്കും ടി വിക്കകത്ത് എപ്പോഴും ഓരോ കാര്യങ്ങൾ ശരിയായിട്ടുള്ള സത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്നും എപ്പോഴൊന്നും കാണാറില്ല എങ്കിലും ഇത് വളച്ചൊടിച്ച് തിരിച്ച് പല കാര്യങ്ങളും ഇങ്ങനെ കാണി ഒരേ കാര്യങ്ങൾ തന്നെ പതിനാറ് വട്ടം കാണിച്ച് മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഒത്തിരി കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് ഇതുകൊണ്ട് എന്നാ പ്രയോജനം എന്ന് മനസ്സിലാകുന്നില്ല എല്ലാവരും ഇങ്ങനെ കാണിച്ച് കാണിച്ച് കാണിച്ച് ഓരോന്ന് കാണിക്കുന്നത് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ കാണും കുറേ കഴിയുമ്പം നിർത്തിയേച്ചു പോവും അല്ലെങ്കിൽ നിർത്താതെ ആണെങ്കിലും പോയി വല്ല കഴിക്കാനുണ്ടെങ്കിൽ കഴിക്കുക കഴിച്ചേച്ച് ഇങ്ങോട്ട് വരും വന്ന് കുറച്ചുനേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി അവിടെ ഇരിക്കും അത് കാണും എന്തുവാ കണ്ടതെന്നോ എന്തുവാ കേട്ടതെന്നോ ഒന്നും പിന്നീട് ചോദിച്ചാൽ അറിയില്ല എല്ലാം അങ്ങ് മറന്നുപോകും പിന്നെ ഇവരുടെ ഇതൊക്കെ കാണാൻ രസമാണ് എല്ലാവരും മാറിമാറി ഓരോ സ്റ്റേഷനും മാറ്റി മാറ്റി പിടിക്കും ഇത് അവർക്ക് പിന്നെ അങ്ങനെ വേറൊരു ഗുണമുണ്ട് ഇവർ എവിടെയെങ്കിലും ഒരിടത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒരു ഇൻറർവെൽ വന്നുകഴിഞ്ഞാൽ ഉടനെ എല്ലാവർക്കും അതുപോലെ പടിപടിയായിട്ട് ഇൻറർവെൽ ആയിരിക്കും അപ്പം നമ്മൾ പോയേച്ചു വന്നുകഴിയുമ്പോൾ എവിടെ ഓൺ ആക്കിയാലും അതിൻ്റെ ബാക്കി നമുക്ക് കാണാൻ പറ്റും അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതുണ്ട് അല്ലാണ്ടെ ആരും ഒരാൾ ഇൻറർവെൽ വെച്ച് അപ്പം ഇൻറർവെൽ വെച്ചു അടുത്തയാൾ ഉടനെ അന്നേരം വാർത്തകളും നടത്തിക്കൊണ്ടിരിക്കുകയല്ല അവരും ഉടനെ ഇൻറർവെൽ വയ്ക്കും പിന്നെ പരസ്യമാണ് പിന്നെ കുറേ നേരം പരസ്യവും കണ്ട് ഇങ്ങനെ ഇരിക്കണം ഏതെങ്കിലും അവതാരകരുടെ പേര് എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ആരുടെയും പേരൊന്നും പിന്നെ അവരുടെ ഒക്കെ പേര് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരില്ല അങ്ങ് മറന്നുപോകും ഷാനി പ്രഭാകരനുണ്ട് പിന്നെ എന്തുവാ അങ്ങനെ ഓർമ്മയൊന്നുവില്ല എല്ലാവരുടെ ഒന്നും അവർ പലരുമുണ്ട് പലരും ഇങ്ങനെ വരുന്നുണ്ട് അവരെല്ലാം പറയുവേം കേൾക്കുവേം ഒക്കെ ചെയ്യുന്നത് നമ്മൾ കാണുവേം കേൾക്കുവേം ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടൊന്നും വലിയ പ്രയോജനമൊന്നുമില്ല എന്നുള്ള വിവരം നമുക്കറിയാം പിന്നെ കണ്ടും കേട്ടും ഒക്കെ പോകുന്നു കാരണം ടി വി ഒക്കെ എടുത്തു വെച്ചിട്ട് അതിൽ കണക്ഷൻ ഒക്കെ എടുത്തിരിക്കുന്നത് കാശുകൊടുത്തിട്ടല്ലേ അപ്പോൾ ഒന്നൊന്ന് കണ്ടേക്കാം കുറച്ച് കണ്ടേക്കാം എന്നും പറഞ്ഞ് കാണുന്നവരാണ് കൂടുതലും ഇതൊന്നും കറക്റ്റ് ആയിട്ടൊന്നും എല്ലാവരുമൊന്നും അതിനെപ്പറ്റി ഒരു ഒരു നിഗമനത്തിൽ എത്തിച്ചേരുന്നൊന്നുമില്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുണ്ട് പിന്നെ എന്തുവാ ഇതൊക്കെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ചാനലുകാർ ഉണ്ടെന്നൊക്കെ പറയുന്നു ആർക്കറിയാം ഇത് നമ്മൾ കണ്ടിട്ട് എല്ലാവരും കണക്കാണ് ഒരുത്തരും അത്ര ക്ലിയർ അല്ല എല്ലാവരും മാറ്റിയും മറിച്ചും തിരിച്ചും മറിച്ചും ഒക്കെ ഓരോന്ന് പറഞ്ഞ് അതിനെ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് ഏതായാലും കണ്ടുകൊണ്ടിരിക്കാം കുറേ അത്രതന്നെ നമുക്ക് എപ്പോഴും ഓരോ ന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പം നമ്മുടെ സമയം പോകുന്നതറിയില്ല അതേയുള്ളൂ മെയിൻ ആയിട്ട് ഞാൻ നോക്കിയിട്ട് ആ സമയങ്ങളിങ്ങനെ വെറുതെ ഓടിച്ചുകൊണ്ട് പോവുന്നുണ്ട് അങ്ങനെ പോവാനുള്ള സൗകര്യം ഇതിനകത്തുണ്ട് അതു മാത്രമേ ഉള്ളൂ പിന്നെ കൂടുതലായിട്ട് എന്തുവാ ഒന്നും പറയാനില്ല അങ്ങനെ ഇത് ദിവസവും ഇത് കാണുന്നുണ്ട് കണ്ടേച്ച് പിന്നെ ഓടിക്കുന്നുണ്ട് ഓടിച്ച് അടുത്ത കാണും മാറ്റും മറിച്ച് ഇതൊക്കെ തന്നെ കളി എന്നാൽ ശരി എന്നാൽ